ആ ആയേ ആ ആ പണി രണ്ടു ദിവസം കഴിഞ്ഞു തുടങ്ങാം നമുക്ക് ബാക്കി പേയ്മെൻ്റ് നമ്മള് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടു ചെയ്യുന്നതു തൊട്ട് നമ്മള് പൈസ പേ ചെയ്താല് മതി വേണ്ട വേണ്ട എല്ലാം എല്ലാം ആ എല്ലാം നമ്മള് തന്നെയാണു ചെയ്യുന്നത് ആ നമ്മള് ഒരു ഓരോരോ സ്റ്റേജായിട്ടാണു ചെയ്യുന്നത് അപ്പോള് ഓരോ സ്റ്റേജ് ചെയ്യുമ്പോള് ഇത്രയിത്ര പേയ്മെൻറ്റ് കറക്റ്റായിട്ടു പറയും സ്ക്വയർ ഫീറ്റിന് നമ്മളിപ്പോള് ഒരു ഒരൂ ഒരു അയ്യായിരം വച്ചാണു പറയുന്നത്

ആ എല്ലാ എല്ലാം കൂടിയിട്ടാണ് തന്നത് പെര്ഫെക്റ്റായിട്ട് ചെയ്ത് ഇല്ലില്ല എല്ലാതും നമ്മുടെ അട്ത്തെന്നെയുണ്ട് എല്ലാം എന്താണു ചെയ്യണ്ടതെന്നുവച്ചുകഴിഞ്ഞാല് കറക്റ്റ് പറഞ്ഞുതന്നാല് നമ്മള് ചെയ്തോളാം

ആ ആ അത് ആ ഓക്കെ ഓക്കെ നാളെ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്കും പോരേ ചാർജ് റെൻ്റെന്നു പറയ്മ്പോ മണിക്കൂർനാ ചാർജ്

ആ ഇല്ല മണ്ണ് മണ്ണു നമുക്ക് എത്ര അളവിലാണു വേണ്ടതെന്നുവച്ചുകഴിഞ്ഞാല് അത് ലെവലാക്കി എടുത്തിട്ട് ആ മണ്ണ് കൊടുത്തിട്ട് നിങ്ങള്ക്കതിന്റെ പൈസ തരികയോ അല്ലെങ്കില് നമുക്ക് വീടു പണിക്കായിട്ട് യൂസ് ചെയ്യുകയോ എന്താണെന്നുവച്ചാല് ചെയ്യാം

ആ ആ ആ അതു നമുക്കഡ്ജസ്റ്റെയ്തെല്ലാം റെഡിയാക്കി സെറ്റാക്കിക്കൊടുക്കാം അതേ പിന്നെ